ഇപ്പോൾ ആയോധന കല നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് ക്ഷേമത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ആരോഗ്യപരമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ അതായത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് എക്സർസൈസ് കാര്യങ്ങൾ ജിമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പോകുന്നു ആൾക്കാരാണ് കൂടുതലും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമെയുള്ള ജംഗ് ഫുഡ്സ് അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് വരുന്ന തടിയുള്ള ആൾക്കാർ ആയിരിക്കും കൂടുതൽ അപ്പം അവരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് ഈ ജിം കാര്യങ്ങളൊക്കെ പോകുന്നെ അപ്പം ഇതിന് പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ ആയോധനകലകൾ ഒക്കെ പഠിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രതിരോധിക്കാൻ ഒരാൾ ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അതിനെതിരെ നമുക്ക് പ്ര പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് ഈ ആയോധന കല കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് ഇന്നത്തെ കാലത്തൊക്കെ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതൽ ഉള്ള കാര്യങ്ങ സമായമാണ് അപ്പോൾ പെൺകുട്ടികൾ കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവനാണ് ജീവൻ തന്നെ രക്ഷിക്കാൻ അവർക്ക് ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് നമുക്ക് പറ്റിയെന്ന് വരാം അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനോധൈര്യംകൂടി ഉണ്ടാകും ആ മനസ്സിന് നമുക്കൊരു ധൈര്യമുണ്ടാകും ഓ നമുക്കിങ്ങനെ അറിയാമല്ലോ നമ്മളൊരു അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല നമുക്ക് എതിരെ അതായത് നമുക്ക് എതിരിടാൻ പറ്റുമെന്നുള്ള ഒരിത് ഉണ്ടല്ലോ അപ്പം ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ മുന്നോട്ടു പോകാൻ പറ്റും